ഉള്ളിക്കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഉള്ളിക്കറിക്ക് വേണ്ടി നമ്മളാദ്യം സവാള എടുക്കണം എന്നിട്ട് നീളത്തിൽ അരിയണം എന്നിട്ട് അതുപോലെത്തന്നെ പച്ചമുളകെടുക്കണം പച്ചമുളകും നീളത്തിൽ അരിയണം പിന്നെന്തെടുക്കണം ഇഞ്ചി എടുക്കണം അതും നീളത്തിൽ അരിഞ്ഞ് നമ്മൾ മാറ്റിവയ്ക്കണം എന്നിട്ട് ഒരു ഒരു പരന്നൊരു പാത്രം എടുത്തിട്ട് അതിനകത്ത് കുറച്ച് എണ്ണ ഒഴിക്കണം എന്നിട്ട് അതില് കുറച്ച് കടുകിടണം കടുകും അതില് ജീരകം ഒക്കെ കുറച്ച് കുറച്ച് ഇടണം പിന്നെ കുറച്ച് കറിവേപ്പില ഇടണം പിന്നെ വറ്റൽമുളക് ഉണ്ടെങ്കിൽ നമുക്കിടാം എന്നിട്ട് അതിന്റകത്ത് ആദ്യം ഇഞ്ചി തട്ടണം ഇഞ്ചിയുടെ ഇഞ്ചി ഒരു ഒരു ഇഞ്ച് ഇഞ്ചി ഒക്കെ മതിയാവും ആ ഇഞ്ചി ഇടുക അതുകഴിഞ്ഞ് പച്ചമുളക് ഇടുക പിന്നെ അതിൻ്റെ അത് കുറച്ച് മൂത്ത് വരുമ്പോഴത്തേക്ക് അതിന്റകത്ത് നമ്മൾ അരിഞ്ഞുവെച്ച ഉള്ളി നീളത്തിൽ അരിഞ്ഞുവെച്ച മൂന്നുള്ളിയും ഇടുക ഇട്ടിട്ട് നല്ലായിട്ട് ഇളക്കി അതൊരു ബ്രൗൺ കളറാവുന്ന വരെ നമ്മളിതിളക്കി യോജിപ്പിച്ച് അതുകഴിഞ്ഞ് ബ്രൗൺ കളർ ആയതിനു ശേഷം അതിനെ എടുത്ത് അതില് കുറച്ചു മുളകുപൊടി കുറച്ച് മല്ലിപ്പൊടി കുറച്ച് ഗരംമസാല ഉണ്ടെങ്കില് ഗരംമസാല ഇടുക എന്നിട്ട് ഇത് നന്നായിട്ട് മൂപ്പിക്കണം മൂപ്പിച്ചതിനുശേഷം അതിലോട്ട് ഒരര ഗ്ലാസ് വെള്ളവും വെള്ളത്തിൻ്റെ കൂടെ കുറച്ച് കൊഴുപ്പ് കിട്ടാൻവേണ്ടി ചപ്പാത്തി ആട്ടമാവ് ചേർക്കുകയാണെങ്കില് നല്ലതാണ് ഇല്ലെങ്കില് തേങ്ങാപ്പാല് ഒഴിക്കാൻ തേങ്ങ ഉള്ളവർക്ക് തേങ്ങാപ്പാല് ഒഴിച്ച് നമുക്കാ കറി എടുക്കാവുന്നതാണ് തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ ചൂടാക്കാന്പാടില്ല ഓക്കെ അങ്ങനെയാണ് നമ്മള് ഉള്ളിക്കറി വയ്ക്കുന്നത്